ട്രാവലിങ്ങ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എല്ലാ സ്ഥലവും ഓരോ സ്ഥലത്ത് പോകുന്നത് കാണാൻ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാം വേറെ വേറെ അവരുടെ ഭക്ഷണവും സ്ഥലത്തിൻ്റെ പ്രത്യേകതയും ആൾക്കാരുടെ പ്രത്യേകതയും ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഏത് സമയത്ത് എങ്ങനെ ഏത് അവസരത്തിൽ യാത്രചെയ്യുക അങ്ങനെ ഒന്നും എനിക്ക് ഇല്ല അതിൻ്റെ അവസരം കിട്ടിയാൽ ആ അവസരം വിനിയോഗിച്ച് യാത്രചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇഷ്ടംപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് നമ്മൾ കാണാൻ നമ്മൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം അത് ഒരു അവസരത്തിന് ആ ഒരു അവസരം മുതലാക്കി പോവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ പിന്നെ അവസരം കാത്ത് ഇരിക്കുക അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഇപ്പം ഈ ഒരു സമയത്ത് നീ വരുന്നുണ്ടോ ഞാൻ ഇന്ന് പിന്നെ കണ്ണൂർ പോവുകയാണ് എവിടെ ഇപ്പം കൊട്ടിയൂർ അമ്പലത്തിൽ ഉത്സവമാണ് അവിടെ പോവുകയാണ് എന്നു പറയുമ്പം ആ നിമിഷം ആഹ് ഞാൻ വരാം എന്നു പറയുന്നതാണ് അല്ലാതെ എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല അവിടെ പോണം അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ആ നിമിഷം ഇപ്പം നമ്മൾ ഇവിടെ എവിടേയ്ക്കാണോ പോവുന്നത് വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ആഹ് ഞാൻ സന്തോഷത്തോടെ ചെല്ലാം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ ചെല്ലുന്ന ഓരോ യാത്രയും പുതുമയുള്ളതാണ് നമുക്ക് ഇന്ന് ഇപ്പം ഇപ്രാവശ്യം പോയതുപോലെ ആയിരിക്കില്ല അടുത്ത യാത്ര നമ്മൾ ആ സ്ഥലത്തു കൂടി പോകുമ്പം അതിനൊക്കെ വ്യത്യാസം ഉണ്ട് കാലാവസ്ഥേൻ്റെ മാറ്റം വരുമ്പോൾ അതിനും വ്യത്യാസം ഉണ്ട് അപ്പം എനിക്ക് എല്ലാം യാത്രയൊ യാത്ര എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം എനിക്ക് ഭയങ്കര അങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടം ഒന്നും ഇല്ല എപ്പോൾ പോകണം എന്നു തോന്നുന്നോ അപ്പം പോവുക അങ്ങനെയാണ്